ഹലോ ടാക്സി ഞങ്ങൾക്ക് വേണമായിരുന്നു കേട്ടോ ഒരു ഓട്ടത്തിന് വേണ്ടിയിട്ടാണ് ഓക്കെ കോവിഡ് അല്ല ഇത് താങ്കൾ എന്തുകൊണ്ട് മാസ്ക് വയ്ക്കാത്തത് മാസ്ക് കറക്റ്റ് ആയിട്ട് മാസ്ക് വയ്ക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ നിങ്ങളുടെ തുമ്മലിലൂടെയും ചുമയിലൂടെയും ഒക്കെ മറ്റുള്ളവർക്ക് ഇത് ഈ ഈ വൈറസ് പടർന്ന് നമുക്ക് കോ ഇത് അസുഖങ്ങൾ പിടിക്കില്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡ്രൈവർ ആയിരിക്കുമ്പം മാസ്ക് ഒക്കെ ധരിച്ചു വേണം ഡ് വണ്ടി ഓടിക്കാനും ഒക്കെ ചെയ്യേണ്ടത് അതുകൊണ്ട് താങ്കൾ മാസ്ക് മേടിച്ച് ധരിക്കുക പിന്നെ ഈ സീറ്റ് ഒന്നും വൃത്തിയല്ല കേട്ടോ കാർ കാ ദം ഒരു കാ നമ്മളൊരു കാറില് നിന്നൊക്കെ കയറും കാർ ഇത് വൃത്തിയായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ടൊക്കെ സൂക്ഷിച്ചാലല്ലേ ആൾക്കാർ കയറുള്ളൂ വൃത്തിഹീനമായ ഒരു ക്യാബ് ക്യാ ഇതൊക്കെ നമ്മൾ ഒന്ന് വൃത്തിയായിട്ട് സ് ഏജൻസി ഏജൻസിക്കാർ അത് ചെ ഒരു വണ്ടി നമ്മൾ വിടുമ്പോൾ ഒരാൾ ബുക്ക് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ വേണ്ടേ അത് വിടാനൊക്കെ ഇപ്പോൾ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് വിടുന്ന ഒരു വണ്ടിയല്ലേ മ് ആൾക്കാർ നമ്മൾ ടാക്സിക്ക് പിടിക്കുള്ളൂ ഇപ്പോഴും നന്നായിട്ട് വൃത്തിഹീന വൃത്തിയായിട്ടൊക്കെ സൂക്ഷിക്കുന്ന സൂക്ഷിക്കുവേം പെറുക്കുവൊക്കെ ചെയ്യുന്ന ഒരു വണ്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നമ്മൾ ഇത് പ് പിടിക്കുന്നതിനും പിന്നെ വണ്ടി ആ നല്ല വണ്ടികളിലേ ആൾക്കാർ പിടിക്കുള്ളൂ ഓട്ടത്തിനൊക്കെ വിളിക്കുകയുള്ളൂ അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ടൊക്കെ വൃത്തിയാക്കിയൊക്കെ വണ്ടിയൊക്കെ സൂക്ഷിക്കുക